അടുത്ത തലമുറ ചരിത്രം പഠിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ നമ്മുടെ തലമുറയിൽ നമ്മുടെ കാലത്ത് ചരിത്രം പഠിച്ചത് പോലെ തന്നെ അതേ പ്രാധാന്യത്തോട് കൂടെത്തന്നെ അടുത്ത തലമുറയും ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു ചരിത്രം പഠിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും നമ്മുടെ സാമൂഹിക വിഭാഗങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുകയും അവരുമായി നല്ല പോലെ ഇടപഴകി വരുവാനും നമുക്ക് സാധിക്കും ചരിത്രം പഠിക്കാതിരുന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ മുമ്പുണ്ടായ തെറ്റുകൾ മുമ്പ് നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ തെറ്റുകൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതായിരിക്കും ചരിത്രത്തിലൂടെ നമുക്ക് നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാനും അതിനെ ഒന്നും കൂടി മെച്ചപ്പെടുത്തി അടുത്ത വട്ടം നമുക്ക് ഒന്നും കൂടി നന്നാക്കി ചെയ്യാനും നമുക്ക് സാധിക്കും എൻ്റെ അടുത്ത തലമുറയോട് അതായത് എന്റെ ചേച്ചിയുടെ മക്കളോട് അല്ലെങ്കിൽ എൻ്റെ അനന്തവ അനന്തരവരോട് ഞാൻ ഞാൻ ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ കേൾ പറയാറുണ്ട് ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ എനിക്ക് പറ്റാവുന്നത് പോലെ ഞാൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കാറുണ്ട് കാരണം ചരിത്രത്തെക്കുറിച്ച് അറിയേണ്ടത് പൂർവികർ കഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് എല്ലാം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്